ആ ആ ഇപ്പോൾ വരും എവിടെക്കാണ് പോവേണ്ടത് ആ ഓ ഓക്കെ കൊടുമ്പ് സുബ്രമണ്യ സ്വാമി ക്ഷേത്രം അല്ലേ പാലക്കാട് അതെ അല്ലേ ഓക്കെ ഇവിടുന്ന് ഒരു മുപ്പത്തഞ്ച് നാൽപ്പത് കിലോമീറ്റർ ആണുള്ളത് നാൽപ്പത് ഇപ്പോൾ എത്ര മണിക്ക് പോവാൻ എത്താൻ അവിടെ എന്നി എത്ര മണിക്ക് എത്തണം അതെ അല്ല ഇത്ര മണിക്ക് പൂജയുണ്ട് അങ്ങനെയെന്തെങ്കിലും നേരത്തെ മുൻകൂട്ടി ബുക്ക് ചെയ്തിട്ട് പോവാണോ ഇല്ല അല്ലേ അപ്പോൾ നട തുറക്കുമ്പോഴേക്ക് എത്തിയാൽ മതി അല്ലേ ഓക്കെ ഓക്കെ ഏട്ടൻ എവിടുന്നാണ് വരുന്നത് ആ ഓക്കെ അവിടെ ആ ആ ഞാനൊരു പത്ത് പതിനഞ്ച് വർഷമായി സർവീസ് തുടങ്ങിയിട്ട് കുഴപ്പമില്ല ഞാൻ ഒരുപാട് തവണ പോയിട്ടുള്ള നട രാവിലെ നാലരയ്ക്ക് തുറക്കും പത്ത് മണിയാവുമ്പോൾ അടയ്ക്കും അത് കഴിഞ്ഞ് പിന്നെ തുറക്കുന്നത് അഞ്ച് മണിക്ക് ആണ് വൈകിട്ട് അഞ്ചര ആറ് മണിയാവുമ്പോഴാണ് തുറക്കുക അതെ നല്ല ഫേമസ് അമ്പലമാണല്ലോ പലയിടത്തുനിന്നും ആൾക്കാർ വരാ ടൂറിസ്റ്റുകളൊക്കെ വരാറുണ്ട് ഇവിടെയിനി എനിക്ക് തന്നെയാണ് ആ ഓട്ടം ഒക്കെ കിട്ടാറുള്ളത് വരാറുണ്ട് നല്ല ഫേമസ് ആണ് അവിടുത്തെ പൂജകളാണെങ്കിലും അതേപോലെ അവിടുത്തെ പരിപാടികൾ ആണെങ്കിലും നല്ല അട്രാക്ടീവ് ആയിട്ടുള്ള ഒരുപാട് പരിപാടികളൊക്കെ ഉള്ളൊരു അമ്പലമാണത് അതുകൊണ്ടുതന്നെ പുറത്തൊക്കെ നല്ല ഫേമസ് ആണ് അതുകൊണ്ടുതന്നെ അത് ഒരുപാട് ടൂറിസ്റ്റുകളും വിനോദസഞ്ചാരികളൊക്കെ അവിടെ എത്താറുണ്ട് അങ്ങനെയാണ് പറയുന്നത് ആ അന്നദാനം ഉത്സവ സീസണിലും പിന്നെ പ്രത്യേക ഈ കർക്കിടക മാസം അങ്ങനെ മാസാചരണങ്ങളൊക്കെ അന്നദാനം ഉണ്ടാവും പിന്നെ ആരെങ്കിലും ഇത് ചെയ്യുമ്പോൾ വഴിപാടായിട്ട് അന്നദാനം അവിടെ നടത്താറുണ്ട് അവിടെ ഉത്സവം അവിടെ മെയിൻ മാർച്ച് ഏപ്രിൽ ആയിട്ട് നടക്കുന്ന കാവടിയാട്ടമാണ് സുബ്രമണ്യ ക്ഷേത്രത്തിൽ ഇനി ഇപ്പോൾ ആ താമസ സൗകര്യം ഉണ്ട് അവിടെത്തന്നെ അടുത്തുതന്നെ റൂംസ് സൗകര്യങ്ങളുണ്ട് ഹോട്ടൽ സൗകര്യങ്ങളുണ്ട് മൂന്നാല് ഹോട്ടൽ തന്നെ അടുത്തുണ്ട് നല്ല റേറ്റ് കമ്മിയായിരിക്കും പിന്നെ അഥവാ ലക്ഷുറി ആയിട്ടുള്ള ഹോട്ടൽ ഒക്കെ വേണമെങ്കിൽ അതും അപ്പുറത്ത് തന്നെയുണ്ട് അതിന് കുറച്ച് റേറ്റ് കൂടും പിന്നെ ഒരു ദിവസം നാലായിരം രൂപ സംതിങ്ങ് വരുന്നുണ്ട് ലക്ഷുറി ഒക്കെ ആവുമ്പോൾ കുറച്ചും കൂടി അതാകുമ്പോൾ ഒരു അഞ്ഞൂറ് അറുനൂറ് രൂപ ആ റേറ്റിൽ നമുക്ക് റൂം കിട്ടും ഇരുപത്തിനാല് മണിക്കൂറിന് ഹോട്ടൽ ഫുഡ് നല്ല ഫുഡ് ഒക്കെയാണ് ഇതുവരെ ഇനി എനിക്ക് അറിയില്ല ഇതുവരെ അങ്ങനെ മോശമാണെന്ന് പറഞ്ഞിട്ട് അനുഭവമില്ല ആരും പറയുന്നതും കേട്ടിട്ടില്ല നല്ല ഫുഡ് ആണ് പറയുന്നത് കേട്ടിരിക്കുന്നത് അങ്ങനെ ഫുഡ് ഒന്നും മോശം ആവാൻ വഴിയില്ല രാവിലെ വരണമെങ്കിൽ നാൽപ്പത് കിലോമീറ്ററിന് മീറ്റർ ചാർജ്ജ് തന്നാൽ മതി മീറ്റ് ആ ഒരു കിലോമീറ്ററിന് അമ്പത് രൂപ വെച്ചിട്ട് നാൽപ്പത് കിലോമീറ്ററിന് ചാർജ്ജ് തന്നാൽ മതി ചാർജ്ജ് കൂടുതലൊന്നും വേണ്ട ഓക്കെ ആ ഓക്കെ ഓക്കെ റെഡി ആയി ഇരിക്ക്